നിൻ്റെ ശരീരഭാഗങ്ങൾ നിയന്ത്രിക്കാന് നീ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ ഫുഡിൻ്റെ കൺട്രോളിങ്ങാണ് ഫുഡിൻ്റെ കൺട്രോളിങ്ങെന്നു പറയുമ്പോള് അതിന്റെ ഒരു ടൈമിങ്ങിനു നല്ല ഫുഡുകൾ കഴിക്കുക അപ്പോള് ആദ്യമായി ഒരു റുട്ടീനെന്നു പറഞ്ഞാല് നമ്മല് ബ്രേക്ക്ഫാസ്റ്റേറ്റവും നല്ലവണ്ണം കഴിക്കുക പിന്നെ ലഞ്ച് അതിലും കുറച്ച് കഴിക്കുക പിന്നെ ഡിന്നര് കുറച്ചുകൂടെയും കുറച്ചു കഴിക്കുക അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോള് കുറച്ചുകൂടെയും പ്രോട്ടീനൊക്കെയുള്ള എന്താ പറയുക എഗ്ഗ് അതുപോലെ മിൽക്ക് പാല് പിന്നെ പഴം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മുന്നോട്ടു കൊണ്ടുവരിക പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴും ഏ ലഞ്ച് കഴിക്കുമ്പോഴൊക്കെ ചോറും അതുപോലെ പച്ചക്കറിയൊക്കെ കൂടുതല് കൂട്ടാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മള് പരമാവധി ഈ എണ്ണക്കടികള് പൊരിച്ചെടുത്തത് അതുപോലത്തെ സാധനങ്ങള് അതുപോലെ ചിക്കന് ഇതൊക്കെ കൂടുതല് കഴിക്കാതെ നില്ക്കുക പിന്നെ പ്രോട്ടീൻ്റെ ഭക്ഷണമെന്നു പറഞ്ഞാല് ഈ ഫ്രൂട്സിൻ്റെ ജ്യൂസുകള് ഇതുപോലുള്ളതൊക്കെ കഴിക്കുക പിന്നെയെന്താണ് പിന്നെ രാത്രിയാണെങ്കില് രാത്രി വളരെ കുറച്ചു കഴിച്ചാല് മതി അധികം കഴിച്ചാല്പ്പിന്നെ പകലിലേക്കതു ബുദ്ധിമുട്ടാവും അപ്പോള് എന്താണ് ഭക്ഷണങ്ങള് കഴിക്കുകയാണെങ്കില് എന്താക്കാം നമ്മുടെ ശരീരത്തിൻ്റെ പോഷണങ്ങളൊക്കെ മെയിന്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ കഴിയും